ആ ഹലോ ആ അതെയല്ലോ ഇത് ആരായിരുന്നു ആ ഓക്കെ മാം എന്തായിരുന്നു ആ ഏത് ക്ലാസ്സിലേക്കാണ് ഏത് ക്ലാസ്സിലേക്കൊക്കെയാണ് അഡ്മിഷൻ ആണോ ഓക്കെ ഓക്കെ എത്ര വയസ്സുണ്ട് കുട്ടികൾക്ക്

ആ ഓക്കെ പേരെന്താ മക്കളുടെ

ആ ഓക്കെ മാം നിങ്ങളുടെ ഏത് സ്ഥലം എവിടെ ആയിട്ടാണ് വരുന്നത്

ഈ നാളെ മക്കളേയും കൂട്ടിയിട്ട് ഒന്ന് സ്കൂളിലേക്ക് വരാൻ പറ്റുവോ അഡ്മിഷൻ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഒന്ന് നടത്താൻ വേണ്ടിയിട്ടായിരുന്നു

ആ ഇവിടെ അഡ്മിഷൻ ഫീ അയ്യായിരം ആണ് ഇതിപ്പം രണ്ട് കുട്ടികൾ ഉള്ളതുകൊണ്ട് പതിനായിരം രൂപ അടക്കേണ്ടി വരും പിന്നെ അഡ്മിഷൻ എടുക്കുമ്പം അയ്യായിരം അടയ്ക്കണം രണ്ടുപേർക്കും കൂടി ഉള്ള പതിനായിരം അടയ്ക്കണം പിന്നെ ബാക്കിയുള്ള ഫീസ് എന്ന് പറയുന്നത് മന്ത്ലി ആണ് വരുന്നത് അത് എന്ന് പറയുന്ന രണ്ടായിരം വച്ചാണ് വരുന്നത് നമ്മുടെ പ്രൈവറ്റ് സ്ക്കൂൾ ആയതുകൊണ്ട് രണ്ടായിരം വച്ചാണ് വരുന്നത് പിന്നെ ഈ ഈ അടയ്ക്കുന്ന അയ്യായിരം രൂപ മക്കൾക്കുള്ള യൂണിഫോമും പിന്നെ ടെക്സ്റ്റും നോട്ടിനൊക്കെയുള്ള പൈസയാണ് ഈ മാസം അടയ്ക്കുന്ന രണ്ടായിരം രൂപ സ്കൂളിലേക്കുള്ളതാണ് പിന്നെ ഇവിടെ നിന്ന് സ്കൂൾ ബസ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സ്കൂൾ ബസ്സ് വേണോ ആ മൈത്രി നഗറല്ലേ പറഞ്ഞത് ആ ഓക്കെ മാം അവിടെ ഞങ്ങളുടെ സ്കൂൾ ബസ്സ് പോവുന്നുണ്ട് ആ വഴി അപ്പം നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളേയും ആ ബസ്സിൽ അല്ലോ ചെയ്യുന്നതാണ് ആ സ്കൂൾ ബസ്സിന് ഫീസ് വരുന്നത് അറുന്നൂറ്റമ്പത് രൂപ വച്ചിട്ടാണ് വരുന്നത് ഒരാൾക്ക് ഓ രണ്ട് പേരുള്ളപ്പോൾ അതിനനുസരിച്ച് ആയിരത്തി മൂന്നൂറാവും

ആ ഇന്നിപ്പം ഞായറാഴ്ച്ച അല്ലേ മാം നാളെ വരികയാണെങ്കിൽ നമുക്ക് നാളെത്തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്നാൽ വന്ന് കുട്ടികളുടെ രണ്ട് ആധാർ കാർഡും പിന്നെ അവരിപ്പം പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ നിന്ന് രണ്ടാം രണ്ട് കുട്ടികളെ ചേർക്കുന്നില്ലേ രണ്ടിലേക്ക് അപ്പം രണ്ടിൽ പഠിച്ച കുട്ടിക്ക് അവർ മുമ്പ് പഠിച്ചിരുന്ന സ്കൂളിൽ നിന്നൊരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും നിർബന്ധമായിട്ടും ആധാർ കാർഡ് എടുക്കണം കേട്ടോ ആ മക്കളേയും കൂട്ടിക്കൊണ്ട് പോര് ആ ഓക്കെ മാം ഓക്കെ താങ്ക് യൂ